ദൈനംദിന സംഭാഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിൽ തന്നെയാണ് മലയാളത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത് ആളുകളായിട്ട് ആശയവിനിമയം നടത്തുക തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷയിൽ പൊതുവായി നമ്മൾ പ്രയോഗിക്കുന്ന ഒരുപാട് പദങ്ങൾ കാണാം നമുക്ക് എടുത്ത് പറയാനും പറ്റാത്തത്ര തരത്തിൽ ഒരുപാട് പദങ്ങൾ നമ്മുടെ മലയാള ഭാഷയിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെടുത്ത് പറയുകയാണങ്കിൽ തന്നെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായി അത് നമ്മളെ തന്നെ നമ്മളെന്ന വാക്കിൽ തന്നെ നമ്മളൊരു ദിവസം എത്ര വട്ടം പറയുന്നുണ്ട് അതുപോലെ ആഹാരം വെള്ളം ഉറക്കം വാഹനങ്ങൾ വീട് അതുപോലെ ഒരു ദിവസം ഒരുപാട് ഒരുപാട് വാക്കുകൾ നമ്മൾ എടുത്ത് തന്നെ ഒരു ഒരു ദിവസം തന്നെ ഈ ആഹാരം എന്ന് പറയുന്നത് നമ്മളെത്ര വട്ടം പറയും നമ്മൾ മൂന്ന് നേരം ആഹാരം കഴിക്കുന്നു എന്ന് പറയും ആ ആഹാരം കഴിക്കുന്ന കാര്യങ്ങൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ വട്ടമാണ് ആഹാരമെന്ന വാക്ക് പറയുക ആഹാരം കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മൾ വെള്ളം കുടിക്കുന്നു വെള്ളം വെള്ളം ഒരു ദിവസം ഒരു മനുഷ്യന് എട്ട് ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത് മിനിമം എന്നാൽ അങ്ങനെയൊന്നും ഇല്ല തോന്നുന്ന പോലെയാണ് നമ്മൾ കുടിക്കുന്നത് ഉറക്കം ഒരു മനുഷ്യന് ഒരിക്കലും ജീവനുള്ള ഒരു ജീവിതജാലത്തിനും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉറക്കം ആ ഉറക്കം എന്ന വാക്കു തന്നെ നമ്മൾ എത്ര വട്ടം ഒരു ദിവസം നമ്മൾ പറയുന്നു നമ്മൾ നമ്മൾ തന്നെ നമുക്ക് പറയത്തില്ലേ നമുക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് നമ്മൾ പറയില്ലേ അതുപോലെത്തന്നെ മറ്റൊരാളോട് നമ്മൾ പറയില്ലേ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് അങ്ങനെ ഉറക്കം എന്ന വാക്ക് എത്രയോ വട്ടം പറയും അതുപോലെ ഒരു വീട്ടിലൊരു വാഹനമില്ലാത്ത വീടുകൾ കുറവായിരിക്കും കുറഞ്ഞത് ഒരു വീട്ടിലെത്ര വാഹനങ്ങൾ കാണും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള കാര്യമാണ് കറൻറ് കറണ്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കറണ്ട് ഇല്ലാതെ രാത്രികാലങ്ങളിൽ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല കറൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ഒരു വീട് എന്നുള്ളത് ഏത് മനുഷ്യൻ്റെയും സ്വപ്നമാണ് വീട് എന്ന് പറയുന്നതും ഒരു വട്ടം നമ്മൾ നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്ന എൻ്റെ വീട്ടിൽ പോവുകയാണ് കറണ്ട് എന്നപോലെ തന്നെയാണ് ഫോൺ ഫോൺ എന്ന് പറയുന്നത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് മനുഷ്യൻ ഉപയോഗിക്കുന്ന വാക്ക് അഥവാ പദമാണ് ഫോൺ ഫോണില്ലാതെ ഈ വന്ന കാലത്ത് ഒരു മനുഷ്യനും നിലനിൽക്കാൻ കഴിയത്തില്ല അതുപോലെ തന്നെയാണ് ഇൻറർനെറ്റ് ഫോണുള്ള ഏതൊരാൾക്കും ഇൻറർനെറ്റും കാണും ഇൻറർനെറ്റ് എന്ന് പറയുന്നത് ഒരു അടിമയായിരിക്കുകയാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് ഫോണും ഇൻറർനെറ്റും ഇല്ലാതെ ഒരു പരിപാടി മനുഷ്യൻ്റെ ഇടയിൽ ഇല്ല അതുപോലെത്തന്നെ കറണ്ടും അതുപോലെത്തന്നെ വെരി ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നതിൽ മുന്നോട്ട് നിൽക്കുന്നതാണ് കരണ്ടും ഇൻ്റർനെറ്റും ഫോണും എല്ലാം തന്നെ നമുക്ക് പ്രധാനമുള്ളതാണ് അതുപോലെത്തന്നെയാണ് ഞാൻ പറഞ്ഞ മറ്റു കാര്യങ്ങളും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇമ്പോർട്ടൻറ്റായിട്ടുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുമായുള്ള വാക്കാണിവ